ഹലോ ഹലോ ഹലോ ഇത് ഡോക്ടർ അല്ലേ അശ്വനി ഡോക്ടർ അല്ലേ ആ അതെ അതെ ഇത് ബാബു ആണ് കാസർഗോഡ് ഷോണാർ നിന്ന് എനിക്ക് കാലുവേദന തലവേദന നെഞ്ച് വേദന കൈ കാൽ പെടലി വേദന ഇത് മുട്ടു വേദന ഉണ്ട് കാലുവേദന ഉണ്ട് തലവേദന ഉണ്ട് കൈമുട്ട് വേദന ഉണ്ട് എല്ലാം വേദനയാണ് ആ അത് കാണാതെ ആശ്രിത് ആ പഴയ ബസ് സ്റ്റാൻഡ് കൂടിയിട്ട് ഏയിലെ വരണം മാർക്കറ്റിലേക്ക് പോകണോ മാർക്കറ്റിൽ എന്ത് ക്ലിനിക്കിൽ ആ ആയുർവേദ ആയുർവേദ ക്ലിനിക്ക് അല്ലേ അവിടെ എണ്ണ എല്ലാം ഉണ്ടാവുമോ തടവാൻ കുപ്പി കൊണ്ട് വരണോ ആ എത്ര മണി വരെ ഉണ്ടാവും ടോക്കൺ എടുക്കണോ അപ്പോൾ ടോക്കൺ എടുത്തിട്ട് വയ്ക്കാൻ പറയണമല്ലോ

ഒരു പേര് ടി വി ബാബു കാസർഗോഡ്

ആ ഇപ്പോൾ അഞ്ച് അഞ്ചര മണി ആവുമ്പോൾ വരുമോ അഞ്ചരക്ക് എത്തുമോ ആ ആ ആയിക്കോട്ട് തന്നെ